ഫോട്ടോസുകളിലൂടെ ഇന്ത്യയെ കാണിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഇന്ത്യേൻ്റെ കൾച്ചർ ആയിരിക്കും എന്താ പറയുക ഫുഡ്ഡ് കൾച്ചർ അതുപോലെത്തന്നെ ഫെസ്റ്റിവൽ ഒരുപാട് ഫെസ്റ്റിവൽ ഉണ്ട് ഓണം വിഷു ക്രിസ്തുമസ് ഹോളി അങ്ങനെ ഉള്ള എല്ലാ ഫെസ്റ്റിവൽസിനെ കാണിക്കും അതുപോൽത്തന്നെ വസ്ത്രത്തിന്റെ രീതി കാണിക്കും അതുപോലെത്തന്നെ ലാംഗ്വേജിന്റെ ഡിഫറെൻ്റ്സ് ഒക്കെ ഒരു ഫോട്ടോ റീൽസ് ആയിട്ട് ഇടാൻ കഴിയും വീഡിയോസ് ആയിട്ട് ഇടാൻ കഴിയും അതുപോലെത്തന്നെ ഫോട്ടോ ഇതാക്കുകയാണെങ്കിൽ ഗ്രാമീണത അതുപോലെത്തന്നെ വീടുകൾ എന്താ പറയുക അരുവികൾ പുഴകൾ അങ്ങനെയുള്ളെ കൾച്ചറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാക്കും അതുപോലെ തന്നെ കഥകളി ചാക്യാർകൂത്ത് അങ്ങനത്തെ ഉള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഫോട്ടോസ് പിന്നെ ആർട്ട് വർക്കും എന്താ പറയുക മൺപാത്ര നിർമ്മാണം അങ്ങനെ ഉള്ള നിർമ്മാണങ്ങൾ പിന്നെ പണ്ടുകാലത്തുണ്ടായ കാര്യങ്ങളും അതുപോലത്തെ എല്ലാം പകൽ ചിത്രങ്ങളിൽ പകർത്തി അത് ഫോട്ടോസിലൂടെ ഇന്ത്യയെ ഇന്ത്യേനെ അറിയാൻ എന്നാണ് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഈ ഫോട്ടോസ് എന്തായാലും ഉപകാരപ്പെടും കാരണം കൾച്ചർ എല്ലാം ഡിഫറന്റ് ആണ് അതുപോലെത്തന്നെ വേഷങ്ങൾ ആയിക്കോട്ടെ നിറങ്ങൾ ആയിക്കോട്ടെ എല്ലാവരിൽ നിന്നും ടേസ്റ്റ് ഡിഫറെൻ്റ്സ് ആണ് ഫുഡ്ഡിന്റെ ആയിക്കോട്ടെ എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസുകളിലൂടെ ഞാൻ എന്റെ ഇന്ത്യയെ കാണിക്കും